മത്സരപരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർത്ത മാധ്യമങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താറുണ്ട് കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയെന്ന് പറയുന്നതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിന് മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് വാർത്താമാധ്യമത്തിനുകൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ് തൊഴിൽവീഥി പഠിപ്പുര പോലുള്ള മാസികകൾ ന്യൂസ് വാർത്താ വാർത്തകളിലുള്ളതും മാത്രമല്ലാതെ കുറച്ചുകൂടി കാര്യങ്ങൾ പൊതുവായിട്ടുളള കാര്യങ്ങളാണെങ്കിലും അല്ലാതെയാണെങ്കിലും തൊഴിൽവീഥി പഠിപ്പുരകൾ നമ്മളെ വളരെ രീതിയിൽ സഹായിക്കുന്നുണ്ടായിരുന്നു പഠിപ്പുര നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് പഠിക്കുന്ന കുട്ടികളിലായിരുന്നു കൂടുതലായിട്ടും അതായത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളിലായിരുന്നു കൂടുതലായിട്ടും പഠിപ്പുരകൾ സഹായകമായിട്ട് വന്നുകൊണ്ടിരുന്നത് പഠിപ്പുരകൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പഠിക്കാൻ തോന്നുന്ന കാര്യങ്ങളായിരിക്കും വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായ രീതിയിലായിരിക്കും പഠിപ്പുരകളിൽ വിശദീകരിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്തതോ അല്ലെങ്കിലെങ്ങനെയാണത് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതെങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ട് എളുപ്പവഴിയിൽ കൂടിയായിരുന്നു പഠിപ്പുര നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് തൊഴിൽവീഥി തൊഴിൽവീഥിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം പൊതുവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മത്സരപരീക്ഷകൾക്ക് വരുന്ന വരുന്ന ചോദ്യോത്തരങ്ങളെ ഓരോ ഓരോ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അതിനകത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നുകൊണ്ടിരുന്നത് അതിപ്പം മത്സരപരീക്ഷകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികൾക്കാണെങ്കിലും വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാനും അല്ലെങ്കിലിപ്പോൾ മത്സര പരീക്ഷയ്ക്ക് പരീക്ഷകൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും ഏത് രീതിയിൽ ചോദ്യം വന്നാൽ ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എളുപ്പത്തിലായിരുന്നു തൊഴിൽവീഥി നമ്മടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നത് അതുപോലെത്തന്നെ തൊഴിൽവീഥിയിൽ നമ്മൾക്ക് ഏതു രീതിയിൽ പഠിച്ചാൽ ഏതു രീതിയിൽ ജോലി കിട്ടും അല്ലെങ്കിൽ എന്തു പഠിച്ചാലാണിങ്ങനെയൊരു ജോലി കിട്ടുക അല്ലെങ്കിൽ തൊഴിലവസരങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ടറിയാനും ഈ തൊഴിൽവീഥി നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ടായിരുന്നു കാലഘട്ടത്തിനനുസരിച്ച് മാറുക എന്നു പറയുന്നത് നമ്മളിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വളരെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളിപ്പോൾ മാറുന്നതുകൊണ്ടാണ് നമ്മൾക്കിപ്പോരു നിലനിൽപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിയതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണുള്ളത് സ്മാർട്ട്ഫോണുളളതുകൊണ്ട് തന്നെ എന്ത് കാര്യം എപ്പോൾ അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്നതാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ഓൺലൈനിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാ കാര്യത്തിനുമുള്ള ആൻസറ് നമുക്ക് അവിടെത്തന്നെ അവൈലബിളാണ് അപ്പോൾ മത്സരപരീക്ഷകൾക്കാണെങ്കിൽ കൂടത്തന്നേയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ കൂടെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ് അതുപോലെത്തന്നെ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ടിപ്സാണെങ്കിൽ കൂടെത്തന്നെ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഓർത്തിരിക്കണം എല്ലാ കാര്യത്തിനും ഓരോ ട്രിക്കുണ്ട് അപ്പം അതുപോലെത്തന്നെയാണ് നമ്മൾ മത്സര പരീക്ഷകളിൽ നമ്മളിതിലും വരുന്ന ക്വസ്റ്റ്യൻ ആൻസേർസ് നമ്മൾ പഠിക്കുന്നത് പിന്നെയുള്ളത് നമ്മൾക്ക് അറിവ് ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ തന്നെ നമുക്ക് അധികകാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ടുണ്ട് എന്ന് അതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിലിപ്പോൾ നമുക്ക് വരുന്ന മത്സരപരീക്ഷകളിൽ കൂടുതലും വാർത്താമാധ്യമങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് കാര്യം എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനുകളല്ലെങ്കിൽ ഇപ്പോഴത്തെ ചോദ്യോത്തരങ്ങൾ വരുന്നത് പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ പണ്ട് എന്തായിരുന്നു നടന്നിരുന്നതെന്നുള്ളതിനെക്കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇന്നലെ എന്തു നടന്നു അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ നടന്ന സംഭവമെന്താണ് ഇങ്ങനെ ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യനൊക്കെ വരുക അപ്പോൾ വാർത്താമാധ്യമം നമ്മളിലെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് നമ്മുടെ അടുത്ത് എത്തുന്നില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നതല്ല പക്ഷേ ഈ വാർത്താമാധ്യമങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പുതിയതായിട്ട് വരുന്ന മത്സരപരീക്ഷകളെല്ലാം വളരെ ഇസ് വളരെ ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തുതീർക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മളെല്ലാ കാര്യങ്ങളും തന്നെ അന്നേരം അപ്പോഴപ്പോഴായിട്ട് നമ്മളറിയുന്നുണ്ട് സോ അതുകൊണ്ട് നമ്മടെ വാർത്താമാധ്യമങ്ങളെന്ന് പറയുന്നത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് മത്സര പരീക്ഷകൾക്കായിക്കോട്ടെ അല്ലാതെ പൊതുവായിട്ടുള്ള അറിവുകൾക്കായിക്കോട്ടെ എന്തിനാണെങ്കിലും നമ്മുടെ വാർത്ത മാധ്യമം നമ്മളെ വളരെ വളരെ ഏറെ സഹായിക്കുന്ന ഒന്നുതന്നെയാണ്